ഹലോ ആടാ മനൂ അശോകാടാ ഇത് ആ ഞാൻ പുതിയ ഫോണും നമ്പറൊക്കെ എടുത്തു കോളേജിൽ ചേരല്ലേ അതാരണം എടുത്തു ആ ഫോൺ ഐ ഫോൺ പതിനഞ്ചിൻ്റെ ഒരു സെക്കൻസ് കിട്ട് ആ ചെറിയ വിലക്ക് കിട്ടിയപ്പം അതങ്ങട്ട് എടുത്തു ആ പിന്നെ എന്തുപറെന്നു വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ആ ആ ഇവിടെല്ലാവർക്കും സുഖം ദേ ഇപ്പോൾ അനിയത്തി ദേ പത്തിൽ ചേർന്ന് പിന്നേ ആ എടാ അതേ ഞാൻ വിളിച്ചത് നീ ഡിജീലോക്കറിലെല്ലെ നിനക്ക് ഡിജീ ലോക്കറ് ശരിയാന്നല്ലേ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ നമുക്കെല്ലാ ഡേ ഡോക്യുമെൻസും കിട്ടുല്ലേ ഈ പ്ലസ് ടുവും പത്തും ഈ ഡ്രൈവേഴ്സ് ലൈസൻസൊക്കെ ഡീ ബെർത്ത് സർട്ടിഫിറ്റ് കിട്ടോ ഓ നല്ലത നല്ലത അപ്പോൾ ഇതെങ്ങനെ ചെയ്യണ്ടേന്ന് നിനക്ക് ഒന്ന് പറഞ്ഞ് തരാൻ പറ്റോ ഞാൻ ചെയ്യാം എനിക്ക് ചെയ്യാനാറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെ ഒരു മിന്റ്റ് ഒരു മിന്റ്റ് ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കാണ് ആടാ കഴിഞ്ഞു കഴിഞ്ഞു ആ അപ്പോൾ ആ എന്നിട്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ എൻ്റെ നമ്പര് കൊടുക്കണം അല്ലെ ഓക്കെ ഒരു മിന്റ്റേ ആ കൊടുത്തു കൊടുത്തു കൊടുത്തു ഒരു ഒ ടി പി വരുന്നോ ഒ ടി പി ആ വന്നല്ലോ നോക്കട്ടെ ഞാൻ കയറട്ടെ ആ കയറി കയറി എന്നിട്ട് ആ അപ്പോം ഇനി നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം അല്ലെ അപ്പോൾ ആധാർ നമ്പര് ആധാർ കാർഡ് ആധാർ നമ്പറില്ലാണ്ട് വേറെ വല്ലെ ഐ ഡിയായ പ്രശ്നോം ഉണ്ടോ അതിപ്പോൾ ആധാർ കാർഡ് എൻ്റെയ്യിലില്ല എലക്ഷൻ ഐ ഡി കാർഡാണ്ള്ളത് ഓ അതായാലും പറ്റോ ഓക്കെ അപ്പം എലക്ഷൻ ഐ ഡി കാർഡും കൊടുക്കട്ടെ അത് കൊടൂത്തു ആ ആ ആ എടാ അപ്പോൾ പാസ്വേഡ് മായിരിയെന്തൊ ചോയിക്കുന്നുണ്ടല്ലോ ഓ അവിടെ ബർത്ത്സ് ബർത്ത് ഡേ ആണല്ലെ ഓക്കെ അത് കൊടുക്കണം ഓ കൊടുത്തു കൊടുത്തു കൊടുത്തു ആ ടാ എന്താടാ ഫ്സ് ഹാങ്ങായ മാതിരി നിൽക്കുന്നു ഓക്കെ എവിടെ എവിടെയാണ് ആ ബട്ടൺ ഓക്കെ മോളിലല്ലേ മോളിൽ ഇടത്ത് വശത്ത് ആ ടാ ആടാ കണ്ടു കണ്ടു കണ്ടു കണ്ടു ഇപ്പോൾ കയറാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ ആ ടാ കയറി കയറി ഓക്കെ ഇനിയിപ്പോൾ ഇല് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാനും കൂടി ഒന്ന് പറഞ്ഞ് തന്നാൽ വേഗം ചെയ്യാനാണെ ആ ടാ ഓ ന്ന് താങ്ക് യൂ താങ്ക് യൂ അപ്പോൾ ആദ്യം എനിക്ക് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ റെജിസ്റ്റർ നമ്പറ് പ്ലസ് ടുന്ന് കാണുന്നുണ്ടോന്നൊ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം അതെടുക്കാം ഓക്കെ ബോഡ് കൊടുക്കണം അല്ലെ ഓക്കെ സി ബി എസ് സി ആ അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ റോൾ നമ്പരൊ ഓക്കെ റോൾ നമ്പറ് രണ്ട് നാല് ആറ് ഓക്കെ ആ അത് കൊടുത്തു ആ അതുകൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഓ നേരത്തത്തെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ആ പാസ്വേഡ് അല്ലെ ഓക്കെ ആ പാസ്വേഡ് കൊടുത്തു റെഡിയായി റെഡിയായി റെഡി ഓ എളുപ്പമായിരുന്നല്ലോ എടാ ബുദ്ധിമാനേ അപ്പോൾ ഇനി എല്ലാം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ ഇങ്ങനെത്തന്നെ ചെയ്താൽ മതിയല്ലോ ഓക്കെ ഓക്കെ ഓക്കെ ഇനിയൊരു സംശയം വ്യത്യാസമുണ്ടോ ഏത് ഡ്രൈവിങ് ലൈസൻസ് ചെയ്യാൻ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് അതിനെന്താ വ്യത്യാസം ഓ അതിൽ നമ്മുടെ ഈ ഇത് കൊട് ഓ ഡ്രൈവ് ലൈസൻസ് നമ്പറ് കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ട് അല്ലെ ഞാൻ നോക്കട്ടെ അപ്പോൾ അതെടുത്തു ഡ്രൈവേസ് ലൈസൻസ് ഓ ശരിയാ മറ്റേതിനൊക്കെ വേറെ രീതിക്കായിരുന്നല്ലോ ഓ അപ്പോൾ ഓ കൊടുത്തു കൊടുക്കട്ടെ കൊടുക്കട്ടെ എടാ അത് കൊടുത്തു കൊടുത്തു ഓക്കെ ഇ ഇത് എ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ എല്ലം ചെയ്താൽ മതിയാകോ ഓക്കെ അപ്പോൾ ഇങ്ങനാണേൽ എടാ നീ ഇതിൽ എപ്പോഴും സൈൻ ഇൻ ചെയ്ത് സൈൻ ഔട്ട് ചെയ്യണോ സൈൻ ഔട്ട് ആവൊങ്ങനെയാണ് സൈൻ ഔട്ട് എപ്പോഴും ചെയ്യണ്ടാലേ അവശ്യമുള്ളപ്പോൾ ചെയ്താൽ അല്ല വല്ലപ്പോഴും സൈൻ ഔട്ടാവുലോ ഓപ്പണാവാണ്ടിരുന്നാൽ ഓക്കെ പിന്നെ ഓ ഇ ഇതിൽ വേറെ എന്തെങ്കിലൊക്കെ അഡ് ചെയ്യേണ്ടതുണ്ടോ ഓ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണോ ഓക്കെ അത് അതെങ്ങനെയാണ് ആഡ് ചെയ്യാൻ അതിൽ ഓപ്ഷന്ണ്ടോ നോക്കട്ടെ ഏറ്റോം അടിയിലാണ് ആ അടീലിണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് കണ്ടു കണ്ടു ഓ ഇങ്ങനെയായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഒരുവിധമെല്ലാമായില്ലേ ഓക്കെ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത് ഓക്കേടാ അപ്പോൾ താങ്ക്സ് ഇത് എനിക്ക് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കായിരുന്നു ഞാൻ ഓക്കെ അപ്പോയിത് റെഡിയായിലേ ഓക്കേടാ പിന്നെ വിളിക്കാം ശരി അപ്പം